ഹലോ ആരാണ് ഓ പറയൂ ടീച്ചർ ഏ ആ യെസ് ഞാൻ അശ്വതിയുടെ അമ്മയാണ്

അതെന്തിനാണ് അതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അതെന്താണ് നിങ്ങൾ നോക്കാത്തത് എൻ്റെ ടീച്ചറേ അത് ക്ലാസ്സിൻ്റെ സമയത്തുതന്നെ ഓരോ കൊച്ചിനേയും നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങൾ എങ്ങനെയാണ് അത് അങ്ങനെ സമ്മതിക്കുക അതും നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളത് സമ്മതിക്കുക ടീച്ചറേ ടീച്ചറേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കറക്റ്റ് കൊച്ച് വന്നാൽ അപ്പം തന്നെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു ദിവസം മുമ്പെങ്കിലും ഇത് പറയേണ്ടേ ഏത് ഏത് വിഷയത്തിനാണ് കൊച്ചിന് മാർക്ക് കുറവ് കണക്കിനാണപ്പോൾ കുറവ് ഏന്ന് പറയുന്നത് അപ്പോൾ സയൻസ് സബ്ജക്റ്റും മാത്സ് സബ്ജക്റ്റും കൊച്ചിന് പ്രശ്നം ആണെന്നാണ് ടീച്ചർ പറയുന്നത് ഓ ടീച്ചറേ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ അതെന്താണ് അങ്ങനെ ഒരു അവസ്ഥ പിള്ളേരൊക്കെ നല്ലോണം പഠിക്കുന്ന പിള്ളേർ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അവൻ്റെ കൂടെയുള്ള പിള്ളേരും നല്ലോണം പഠിക്കുന്നതാണ് ആ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അശ്വിൻ്റെ കൂടെയുള്ള ധീരജ് ഇവരൊക്കെ നല്ല നന്നായി പഠിക്കുന്ന പിള്ളേർ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അവൻ്റെ കൂടെ കൂടിയിട്ട് അവന് അങ്ങനെ ഒരു പ്രശ്നം വരേണ്ടതല്ലല്ലോ ആ ശരി ടീച്ചറേ ഞങ്ങൾ ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നാല് മണി ആവുമ്പോളേക്കും പിക്ക് ചെയ്യാൻ വരാം ശരി ടീച്ചറേ ഓക്കെ ശരി ടീച്ചർ